തീർച്ചയായും എനിക്ക് കവിതകൾ ഭയങ്കര ഇഷ്ടാണ് കവിതകളും കഥകളും വായിക്കുന്ന ആളാണ് ഞാന് അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതാ കൃത്താണ് മുരുകൻ കാട്ടാകള കാട്ടാക്കട അദ്ദേഹത്തിൻ്റെ രേണുക കണ്ണാടി നെല്ലിക്ക തിരികെ യാത്ര വളരെ മനോഹരമായ ജീവിത സ്പർശിയായ കാര്യങ്ങളാണ് അദ്ദേഹം കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കർഷകനെ കുറിച്ചുള്ള ഒരു കവിതയൊക്കെ ഉണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല വളരെ മനോരമായിട്ടുള്ള കവിതകളാണ് അതേപോലെ സുഗതകുമാരിയുടെ കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ പോലെ വൈലോപ്പിള്ളിയുടെ മാമ്പഴം പിന്നെ ബെന്യാമൻ്റെ കഥകൾ കഥകളും എനിക്ക് ഇഷ്ടമാണ് ബെന്യാമൻ്റെ കഥകളും ഇഷ്ടമാണ് പിന്നെ മാധവിക്കുട്ടിയുടെ കഥകൾ ഇഷ്ടമാണ് ചേതൻ ഭഗത്തിൻ്റെ കഥകൾ ഇഷ്ടമാണ് കഥകളും കവിതകളും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും വിരസമായിരിക്കും അവരുടെ അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുക പല ജീവിതങ്ങളും ആയിരിക്കും കവിതകളുടെ രൂപത്തിലേക്ക് നമ്മുടെ മുന്നിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നത് കഥകൾ ചിലതൊക്കെ യാഥാർത്ഥ്യമാണ് ചേതൻ ഭഗത്തിൻ്റെ ഹാഫ് ഗേൾ ഫ്രണ്ട് ഒക്കെ റിയൽ സ്റ്റോറിയാണ് വളരെ നല്ല കഥകളാണ് അതേപോലെ ബെന്യാമിൻ്റെ ആടു ജീവിതം റിയൽ സ്റ്റോറിയാണ് അപ്പം ഇങ്ങനെ ഉള്ളൊരു ജീവിച്ചിരുന്നു ഈ ഒരു അവസ്ഥയിലും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് കഥാകൃത്ത് വഴി മുഖേനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പം എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഓരോ കഥകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മുരുകൻ കാട്ടാകടയുടെ കവിതകൾ ഭയങ്കര പറയാണേ ഭയങ്കര ഫാനാണ് തിക്ക് ഫാനാണ് ആളുടെ ഞാൻ ഒരു പ്രവശ്യം നേരിൽ കാണാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ജീവിതങ്ങളാണ് നമുക്ക് നേർ കാഴ്ചയാണ് കവിതകളുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്